ഞാൻ ബിസിനസ്സ് ആയിട്ടല്ല തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഉപഭോക്താക്കളിൽ സാധാരണക്കാരായ ആളുകളാണ് ബിസിനസ്സ് ആയിട്ടല്ല എൻ്റെ വരുമാനമാർഗ്ഗം ആ ബിസിനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ തയ്യൽ ഒരു സൈഡ് ബിസിനസ്സ് ആണല്ലോ അപ്പോൾ ഞാൻ തയ്ക്കുന്നത് പ്രധാനമായിട്ടും ബ്ലൗസ് സൽവാറ് ചുരിദാറ് ടോപ്പ് അതൊക്കെയേ തയ്ക്കാറുളളൂ ചുദാറിൻ്റെ പാൻറ്റ് അങ്ങനെയൊക്കെ തയ്ക്കാറുണ്ട് ബ്ലൗസിന് സിംഗിൾ ആയിട്ട് അതായത് എക്സ്ട്ര ലൈനിംഗ് ഉള്ള അല്ലാത്ത ബ്ലൗസിന് ഇരുന്നൂറ് രൂപയും ലൈനിംഗ് ഉള്ളതിന് മുന്നൂറ് രൂപയും ആണ് വാങ്ങിക്കുന്നത് ബ്ലൗസിന് സാരി ബ്ലൗസിന് ചുരിദാറിനാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് തൊട്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരെ ഫാഷൻ മോഡ് മാറുന്നത് അനുസരിച്ച് നാന്നൂറ് രൂപ വരെയൊക്കെ വാങ്ങിക്കാറുണ്ട് ഫാഷൻ ബ്രാൻഡിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ജോലി ചെയ്യുന്നില്ല ഫാക്ടറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നില്ല വസ്ത്രം തയ്ച്ച് കൊടുത്ത് കാശ് വാങ്ങിക്കുന്നുണ്ട് എൻ്റെ ഉപഭോക്താക്കളൊക്കെ സാധാരണക്കാരായിട്ടുള്ള അന്നന്ന് പോയി ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് കൂടുതൽ കൂലി അവരുടെയിൽനിന്ന് വാങ്ങാറില്ല പിന്നെ കല്യാണ ആവശ്യങ്ങൾക്കോ മറ്റോ ഒക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ ഫാഷൻ ഒക്കെ മോഡും അതിൻ്റെ ഫാഷൻ അനുസരിച്ച് അൽപ്പം കൂലി കൂടുതൽ വാങ്ങിക്കാറുണ്ട് അത്രയേ ഉള്ളു ഒരു ചെറുകിട ഒരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ബ്ലൗസിന് നൂറ്റമ്പതും ലൈനിംഗ് ബ്ലൗസിന് മുന്നൂറും ചുരിദാറിന് ഇരുന്നൂറും മുതൽ മുന്നൂറ്റമ്പത് വരെ അത്രയേ ഉള്ളൂ ഈടാക്കാറുള്ളൂ